അതായത് നമ്മുടെ ഇപ്പം ഇപ്പം ഇന്നത്തെ കാലത്തോക്കെ പാർട്ടി അതായത് നമ്മുടെ പാർട്ടികൾ ഏതൊക്കെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് രാഷ്ട്രീയപാർട്ടികൾ നമുക്ക് വേണമെങ്കിൽ പറയാം യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി അതായത് മെയിൻ ആയിട്ട് ഇതാണ് മൂന്ന് പാർട്ടികള് അപ്പം ഇപ്പോൾ കേന്ദ്രം ഒക്കെ ഭരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബി ജെ പി സർക്കാരാണ് അതായത് മോദിൻ്റെ ഒക്കെ ഒരു സർക്കാരാണ് ഇപ്പോൾ കേരളം ഒക്കെ ഭരിച്ച് കൊണ്ട് കേന്ദ്രം ഒക്കെ കേന്ദ്ര ഭരണം ഒക്കെ അവരുടെ കയ്യിലാണ് നമുക്ക് കേരളത്തിൻറെ ഭരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മുഖ്യമന്ത്രി അതായത് നമ്മുടെ പിണറായി വിജയൻ്റെ കയ്യിലാണ് അയാളൊരു എൽ ഡി എഫ് കാരനാണ് ഇപ്പോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടുതൊട്ടേ ഈ പാർട്ടി കാര്യങ്ങളൊക്കെ പണ്ട് തൊട്ടേ രൂപീകരി അതായത് പണ്ട് ഈ സംസ്ഥാനത്തില് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് പാർട്ടി ഒക്കെ ഇപ്പോൾ യു ഡി എഫ് അതായത് യു ഡി എഫ് കൂടുതലും മുസ്ലിംസും പിന്നെ ബി ജെ പി കൂടുതലും ഹിന്ദുക്കളും പക്ഷേ എൽ ഡി എഫ് എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ ജാതികളും ഒരുപോലെ പ്രവർത്തിക്കുന്ന ഒരു പിന്നെ ഒരു പാർട്ടിയാണ് നമ്മുടെ എൽ ഡി എഫ് എന്ന് പറയുന്നത് അപ്പം പിന്നെ നമുക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ കൊണ്ടൊന്നും വലിയ കാര്യ ഉപകാരം ഒന്നും ഇല്ല എല്ലാവരും എല്ലാവരുടെ കാര്യമാവുമ്പോൾ നമ്മളോട് സംസാരിക്കാനും കാര്യത്തിനും വരും കാര്യം കഴിയുമ്പോൾ അവര് പിന്നെ മൈൻഡ് ആക്കുക പോലുമില്ല അതാണ് ശരിക്കും മെയിൻ പാർട്ടി പ്രവർത്തകര് എന്ന് പറയുന്നത് തന്നെ